ഇന്ത്യയുടെ സംസ്കാരത്തിൽ ഈ ഭൂ പ്രദേശത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം അതില് വളരെ ഒരു ഭാഗം പുലർത്തുന്നു പുലർത്തുന്നുണ്ട് അതില് വളരെ ഒരു മേജർ റോള് വിദ്യാഭ്യാസത്തിനുണ്ട് ഇന്ത്യയുടെ ഭൂചലനത്തെപ്പറ്റി അറിയാനായിട്ട് അത്പോലെതന്നെ ഇപ്പത്തെ ഒരു സാഹചര്യം വെച്ചാണെങ്കിൽ സോഷ്യൽ മീഡിയാസ് അത്പോലെതന്നെ ബാക്കിയുള്ള ഇൻ്റർനെറ്റ് അതായത് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലും ഇത് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻ്റസിലെല്ലാം ഈ പറയുന്ന ഇതിനെപ്പറ്റി ഭൂ പ്രദേശത്തെപ്പറ്റിയൊക്കെ അറിയാനുള്ള ചാൻസസ് വളരെ കൂട്തലാണ് കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ട്രിപ്പ് പോകണം എത്ര ഏജൻസീസുണ്ട് എങ്ങനത്തെ ഏജൻസീസുണ്ട് കാശ്മീർ ട്രിപ്പ് എല്ലാം സ്ഥലത്തെപ്പറ്റിയും ഒരറിവ് നമുക്ക് തരുന്ന റീല്കൾ തരുന്ന ഒരുപാടധികം ഏജൻസീസുണ്ട് ഈ അങ്ങോടെല്ലാം യാത്ര കൊണ്ടുപോകുന്ന ഒരുപാട് ഏജൻസീസുണ്ട് അവരുടെ എല്ലാം പ്രൊമോഷൻസ് ആൻ്റ് അഡ്വർടൈസ്മെൻ്റ്സ് സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വളരെ ഒരു അത് അതെല്ലാം ഇപ്പം മെയിൻലി നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും നല്ല ഒരു അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് തന്നെയാണ് ഏറ്റവും കൂടുതല് ഇന്ത്യയുടെ ഭൂ പ്രദേശത്തെപ്പറ്റി അറിയാൻ ഉള്ള ഏറ്റവും കൂടുതല് ചാൻസുള്ള ഒരു സംവിധാനം അത്പോലെതന്നെ ബൈക്കിംഗ് എങ്ങനെയാണ് എന്ന് നല്ല സ്വാധീനം ചെലുത്തുക എന്ന് ചോദിച്ച് കഴിഞ്ഞാല് ബൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട് കാരണം റൈഡിംഗ് എന്ന് പറയുന്നത് എന്നും ഒര് ഹരവായിട്ടുള്ള ഒരുപാടധികമാൾക്കാരുണ്ട് പതിനെട്ട് വയസാകുമ്പം തന്നെ ബൈക്ക് കിട്ടുക ബൈക്ക് കിട്ടും ബൈക്കോടിക്കാൻ വേണ്ടിത്തന്നെ നമ്മള് എന്നാൽ ലൈസൻസ് കിത്തി കഴിഞ്ഞാൽ തന്നെ ട്രിപ്പ് പോവാൻ മേണ്ടി ഇത്തിന് ലൈസൻസെടുക്കുന്ന ഒരുപാടാൽക്കാരുണ്ട് പതിനെട്ടാവുമ്പത്തന്നെ ലൈസൻസിന് കൊണ്ടുപോയി ചേര ഇത് കൊടുക്കുന്ന ഒരുപാടധികം ആൾക്കാരെ നമ്മുടെ കുട്ടികള് നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കില് സ്വന്തമായിട്ട് ട്രിപ്പ് പോകുക അല്ലെങ്കിൽ കൂട്ടുകാരൊത്ത് അല്ലെങ്കിൽ എന്നാൽ ഈ പറയുന്ന ഫാമിലിയുമൊത്തൊക്കെ പോയിട്ട് പല പ്രദേശത്തോട്ടും കേരളത്തിലാണേലും അതിന് പുറത്താണേലും ഇന്ത്യയുടെ ഒട്ടുമിക്ക സലങ്ങളിലേക്കും ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ആസ്വദിച്ച് പോവാൻ പറ്റിയൊര് സംവിധാനമാണ് ബൈക്കിങ്ങ് എന്ന് പറയുന്നത് ബൈക്കിങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈക്കിങ്ങ് ഇപ്പോൾ നമ്മള് പറയുകയാണെങ്കിൽ നമ്മള് ചെറുപ്പത്തിലെ സൈക്കിളോടിച്ച് പഠിക്കുന്നു സൈക്കിള് കൊണ്ട് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളില് എവിടെയെല്ലാം പോവാൻ പറ്റുന്നോ അവിടെയെല്ലാം നമ്മള് പോയിട്ടുണ്ടാവും ഒരു സൈക്കിള് കൊണ്ട് ഏകദേശവൊരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലായിടത്തും പോകേണ്ടവര് പോയിട്ടുണ്ടാവും മിക്ക കുട്ടികളും തന്നെ ഒരു പത്താം ക്ലാസ് വരെ ആയിരിക്കും നമുക്ക് സൈക്കിള് കൊണ്ടുള്ള ഉപയോഗം കൂടുതല് ഉണ്ടാവുന്നത് അപ്പം ആ ഒരു ടൈമില് എല്ലാവരും തന്നെ സൈക്കിളിലായിരിക്കും എല്ലാ കുട്ടികളും തന്നെ സൈക്കിളിൽ സൈക്കിളോടിച്ച് ചുറ്റുവുള്ള പ്രദേശങ്ങളിലെല്ലാം കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം പൊതുവെ പിള്ളേരിലുണ്ട് അപ്പോൾ അത് ഇപ്പം സൈക്ലിംഗിനെപ്പറ്റി എനിക്ക് കൂട്തലായിട്ട് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും സൈക്ലിംഗ് ചെയ്യാൻ പറ്റിയ അതായത് ഇപ്പം തന്നെ സൈക്ലിങ്ങിനെപ്പറ്റി സൈക്കിള് കൊണ്ട് കാശ്മീര് പോകുന്നവരുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടൊണ്ട് അവൻ തന്നെ മൂന്നാറും ഈ അടുത്ത് തന്നെ ഒരു ലോങ്ങ് ട്രിപ്പ് പോയിട്ട് ട്രിവാൻഡ്രം വരെയെങ്ങാണ്ട് പോയിട്ട് വന്നിട്ട് നിൽക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത് സൈക്കിളില് അപ്പോൾ അത്രയും ഡിസ്റ്റൻസൊക്കെ കവർ ചെയ്യാൻ സൈക്കിള് കൊണ്ട് പറ്റും അത്രയും ഡിസ്റ്റൻസില് പോകുന്ന ആൾക്കാരുണ്ട് സൈക്കിളിങ്ങൊരു കുർ കുറെ പേർക്ക് തോന്നും അത്പോലെതന്നെ ബൈക്കിംഗ് ബൈക്ക് മോട്ടർ സൈക്കിൾ അതും വളരെയധികം സ്വാധീനം പോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ ദുൽഖർ സൽമ്മാൻ്റെ സിനിമയായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിലൂടെ തന്നെ ബൈക്കിംഗ് എന്തോരും ഹരം കൊള്ളിക്കാമെന്ന് നമ്മളെ കാണിച്ച് തരുന്ന ഒരു സിനിമയാണ് എന്നുള്ളതും കാരണം നേപ്പാള് വരെ അതിന്നെ ബൈക്കിൽ പോകുക നമുക്ക് കാറ് കൊണ്ട് പല സ്ഥലത്തേക്കും എത്തിപ്പെടാൻ പറ്റി എന്ന് വരില്ല ഹൈവേസ് അല്ലെങ്കിൽ കാറിന് പോവാൻ പറ്റിയ റോഡ്സിലൂടെ മാത്രായിരിക്കും കാറ് കൊണ്ട് പോകാൻ നമുക്ക് പോകലന്നെ പക്ഷേ ബൈക്ക് അങ്ങനെയല്ല ഏത് മലേടെ മണ്ടേ കൂടേയും ഏത് ഇപ്പത്തെ ഒരു സംവിധാനങ്ങളും ടെക്നോളജിയുമനുസരിച്ച് ഒരുപാടധികം അഡ്വഞ്ചർ ബൈക്കുകൾ ഇറങ്ങുന്നുണ്ട് ഈ ബൈക്കുകളെല്ലാം തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് അല്ലെൽ മലകൾ കയറാൻ പറ്റിയ ടൈപ്പ് ബൈക്കുകളുണ്ട് കുന്നുകൾ കയറാൻ പറ്റിയ ടൈപ്പ് ബൈക്കുകളുണ്ട് കല്ലുകളുടെ മുകളിൽ കൂടെ ഓടിക്കാൻ പറ്റിയ ടൈപ്പ് ബൈക്കുകളുണ്ട് ഇങ്ങനെ പോവാൻ പറ്റുന്ന ഒരുപാടധികം ബൈക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈക്കിംഗ് എന്നും കമ്മ്യൂണിറ്റീസിലല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ എന്നും ഹരം കൊള്ളിക്കുന്ന ഒരു കാരണം ഇന്ത്യ മൊത്തമൊട്ടാകെ കറങ്ങാൻ പറ്റിയ ഇന്ത്യയുടെ ഏത് ഭാഗത്തൂടെ പോകാൻ പറ്റിയൊരു വാഹനമാണ് ബൈക്കിംഗ് അത് ബൈക്ക് എന്ന് പറയുന്നത് അപ്പം ബൈക്കിംഗ് അതിലൂടെ നമുക്ക് ഇന്ത്യ മൊത്തം ചുറ്റി കാണുക എന്നുള്ളത് കൊണ്ട് ഒരുപാടധികം എക്സ്പീരിയൻസും ഒരുപാടധികം കൾച്ചറുകളും ഒരുപാടധികം സംസ്കാരങ്ങളെപ്പറ്റിയും ഒരുപാടധികം ഭാഷകളെപ്പറ്റിയും പല ദേശത്ത് ഉള്ള പല ആൾക്കാരെപ്പറ്റിയും നമുക്ക് പരിചയപ്പെടാനും അവരുമായിട്ട് ഉള്ള സമ്പർക്കം അവരിൽ കുറെ ഉണർവുകൾ ഉണർത്താനുമുള്ള ഒരു ഒരു മേഖലയാണ് ബൈക്കിങ്ങ് എന്ന് പറയുന്നത്